നമ്മുടെ സമൂഹത്തിൽ ഇന്നും പ്രയോ സമുദായത്തിൽ ഇന്നും പ്രയോഗത്തിലുള്ള പാരമ്പര്യമായ കൃഷി രീതികളാണ് കൂടുതൽ രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള യാതൊരു രീതിയിലുള്ള കീടനാശിനികളും ഞങ്ങൾ നമ്മുടെ കൃഷി സമുദായത്തിൽ കൃഷിരീതിയിൽ ഉപയോഗിക്കാറില്ല കൂടാതെ കിളയ്ക്കാനും മറ്റുമായി നമ്മൾ പാരമ്പര്യമായി ഉപയോഗിച്ച് വരുന്ന വസ്തുക്കൾ തന്നെയാന്ന് ഇപ്പോഴും ഉപയോഗിക്കുന്നത് യന്ത്രങ്ങളുടെ സഹായം അധികമായി ഉപയോഗിക്കുന്നില്ല ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഏലം പിന്നെ കുരുമുളക് പിന്നെ പാവൽ തുടങ്ങിയ വിളകളാണ് നമ്മൾ കൃഷി ചെയ്യാറുള്ളത് അതിന് നമ്മൾ നമ്മുടേതായ പാരമ്പര്യമായ രീതികൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അല്ലാതെ ഇന്നത്തെ കാലത്ത് മുന്നോട്ട് കൊണ്ടു വരുന്ന യാതൊരു രീതിയിലും ഉള്ള വിളവ് രീതികളും ഞങ്ങൾ ഇതിന് സ്വീകരിക്കാറില്ല